എനിക്ക് ഇഷ്ടപ്പെട്ട സാഹിത്യ കഥാപാത്രം വൈക്കം മുഹമ്മദ് ബഷീർ ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ നൈർമല്യപരമായ ചിന്തകളും വാക്കുകളും സാഹിത്യ പ്രയോഗങ്ങളുമാണ് അവരിൽ നിന്ന് പഠിച്ചത് ചെറിയ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നു അതും ആ കഥാപുസ്തകത്തിലൂടെ പാത്തുമ്മയുടെ ആട് എന്ന ഒരു നോവല് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവല് വളരെ നല്ല ഒരു നോവലാണ് അത് ഞാൻ പത്താം ക്ലാസ്സിൽ രണ്ടാം പേപ്പറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് അവിടുത്തെ ജീവിതസാഹചര്യവും അതിൽ ഓഹ് അതിലുപരി അതിനകത്ത് ഓഹ് ഒരാടിൻ്റെ ഓഹ് ആട് ആ വീട്ടിലൊരു പ്രധാന കഥാപാത്രമായിരുന്നു അതേക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്